ക്ലാസിക്കല് ഗാനത്തിന് നൃത്തം ചെയ്യുന്നത് വളരെ നമുക്കൊത്തിരി പരിശീലനം വേണം പിന്നെ അതില് മെച്ചപ്പെടുത്താനും നമ്മളെപ്പോഴും എന്നുവച്ചാല് പ്രാക്ടീസെയ്തോണ്ടേയിരിക്കണം അപ്പോള് ക്ലാസിക്കൽ എന്നുവച്ചാല് അത് അതിൻ്റെ ഭാവം മുദ്രകള് ഒക്കെ നന്നായിട്ട് എടുക്കണം അപ്പോള് അതുകൊണ്ട് നമ്മള് അതു കൂടുതലായിട്ടും പ്രാക്ടീസ് പരിശീലനം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കതു നല്ലതുപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോള് അതുകൊണ്ട് ഈ ഇതിന് നമ്മള് നൃത്തം ചെയ്യുമ്പോള് അതിൻ്റെ ശാരീരിക കഴിവുകള് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ കഴിവ് മെയ്വഴക്കവും കൈവഴക്കവും ഒക്കെ നന്നായിട്ടു വരണം പിന്നെ അത് ഒന്നോ രണ്ടോ തവണ കളിച്ചാലൊന്നും നമുക്കു ശരിയായിട്ടു വരണമെന്നില്ല ഗാനത്തിനനുസരിച്ച് നമ്മുടെ മുദ്രകള് മാറിക്കൊണ്ടിരിക്കണം അപ്പോള് അതിനൊത്തിരി പരിശീലനം ആവശ്യമാണ് നല്ല നല്ല നൃത്തം അറിയാവുന്നവരുടെയടുത്തു പോയിട്ട് നമ്മള് പരിശീലിക്കുകയും ഒത്തിരി ദിവസം അതു പരിശീലിച്ച് പ്രാക്ടീസിയ്ത് കഷ്ടപ്പെട്ടാല് മാത്രമേ നമുക്ക് അത് നല്ല ഭംഗിയോടുകൂടെ അവതരിപ്പിക്കാൻ നമുക്കു കഴിയത്തുള്ളൂ അപ്പോള് അതുകൊണ്ട് പിന്നെ ശാരീരിക കഴിവു ഭയങ്കര പ്രധാനപ്പെട്ടതാണ് അതു കൂടുതലും മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമ്മള് ദിനം പ്രതി പ്രാക്ടീസ് ചെയ്യണം പിന്നെ പാട്ടിനനുസരിച്ച് കളിച്ചു തുടങ്ങണം ഇപ്പം ഇന്ന് ഒരു ദിവസം അരമണിക്കൂറാണെങ്കില് അടുത്ത ദിവസം ഒരു മണിക്കൂര് അപ്പോള് അത്തുടർച്ചയായിട്ട് പ്രാക്ടീസെയ്യേയും അതു മറ്റുള്ളവരോട് ആരെയും കാണിച്ചാൽ മാത്രമേ അതു നമുക്ക് വേറൊരിടത്ത് കളിക്കാൻ പറ്റുകയുള്ളൂ അപ്പോള് ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം പക്ഷേ പയ്യെപ്പയ്യെ അതു ചെയ്താൽ മാത്രമേ ഇതില് നമുക്ക് വിദഗ്ദ്ധ എന്നുവച്ചാല് പ്രാഗൽഭ്യം നേടാൻ കഴിയുകയുള്ളു അപ്പോള് ശരി